ഇവിടെ സമീപത്തെന്നു പറയാമെന്ന് വെച്ചാൽ ആർട്ട് സപ്ലൈസ് സ്റ്റോർ ഒന്നും ഇല്ല കുറച്ചങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ കൂത്തുപറമ്പ് സ്റ്റാൻഡ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മോഡേൺ സ്റ്റോറുണ്ട് ബോബി സ്റ്റോറുണ്ട് ഇപ്പോൾ ബോബി സ്റ്റോർ നിന്നാണ് അധികവും ആർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളത് ഫാബ്രിക്ക് പെയിൻറ്റ് വാട്ടർ കളറ് ക്രയോൺസ് സ്കെച്ച് ഇങ്ങനെയുള്ള പെയിൻറ്റും ഓയിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട് പിന്നെന്താണ് കളർ പേപ്പറ് വാങ്ങാറുണ്ട് പേപ്പറ് ഓയിൽ പേപ്പറ് വാങ്ങാറുണ്ട് അങ്ങനെ ആർട്ടിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും വാങ്ങാറുണ്ട് പിന്നെ കരകൗശലത്തിലും താല്പര്യമുണ്ട് കരകൗശല വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരകൗശലത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം ഡാൻസിന് ഡാൻസാണ് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടം ഡാൻസ് കളിക്കുമ്പം യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വസ്തുക്കൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെന്താണ് ഇതിനോടൊക്കെ വളരെ നല്ല രീതിയിൽ താല്പര്യമുണ്ട് ആയ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങുന്നതും യൂസ് വെച്ച് ചിലങ്ക അങ്ങനെയുള്ള കാര്യങ്ങൾ മുടി വെക്കുമ്പോൾ വട അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും അടുത്ത് തന്നെ ഉണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ കരകൗശല വസ്തുക്കളുടെ സാധനം അങ്ങനെ അടുത്തില്ല പക്ഷെ എങ്കില് ആർട്ട് സപ്ലൈസ് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയാനുള്ളത്